ചേട്ടാ ഒരുപാട് നന്ദി കാരണം രാത്രി ഒരുപാട് വൈകിയിരിക്കുന്നു അപ്പോൾ എന്നെ കറക്റ്റായിട്ട് എൻ്റെ വീട്ടില് സുരക്ഷിതമായി ഇറക്കിത്തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെപ്പോലുള്ള നല്ല ഡ്രൈവേഴ്സാണ് നല്ല യാത്രക്കാർക്ക് ഒരു സഹായമാവണത് അപ്പോൾ ഒരുപാട് നന്ദി ചേട്ടാ